ഞാൻ കുറേകാലം സ്കൂൾ ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇന്ന് ഉന്നതനിലയിൽ എത്തിയിട്ടുണ്ട് അവരുടെ നേട്ടങ്ങളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എല്ലാ കുട്ടികളും വളരെ ഉന്നതിയിൽ ആണ് നല്ല നല്ല ജോലി സ്ഥല ജോലിയിൽ ആണ് അവർ പ്രവേശിച്ചിരിക്കുന്നത് അവരുടെ ഉന്നതിയിൽ ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുകയാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികൾ വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുകയും നല്ല നല്ല ജോലികളിൽ പ്രവേശിക്കുകയും അതിൽ നിന്നും അവർക്ക് നല്ല വരുമാനവും അവരുടെ സാമ്പത്തിക നില ഭദ്രമായി കാണു കാണുന്നതും അവരുടെ കുടുംബം സുരക്ഷിതമായി സന്തോഷപ്രദമായി ജീവിക്കുന്നതും കാണുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന അഭിമാനം സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാതത്രയും വലുതാണ് എൻ്റെ കുട്ടികളുടെ പെരുമാറ്റവും അവരുടെ നല്ല സ്വഭാവവും ഞാൻ പക പകർന്നു കൊടുത്ത നല്ല ശീലങ്ങളും അവർ ഇന്നും ഇന്നും അത് കൊണ്ടുനടക്കുന്നത് കൊണ്ട് അവരുടെ കുട്ടികളിലേക്കും അവരത് പകർന്നു കൊടുക്കുന്നത് കൊണ്ടും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എനിക്ക് വളരെ വലുതാണ് എൻ്റെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കുന്നതും അവരുടെ സ്വഭാവം ഏറ്റവും നല്ലതായി സമൂഹത്തിനു വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്നതും എല്ലാം കാണുമ്പോൾ ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയാണ്